കോഴിക്കോട് ജില്ലയിലെ പ്രധാനവിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് കുടിവെള്ളം ഇല്ലാത്തെ കുടിവെള്ളക്ഷാമം അതായത് അവരുടെ കുടിവെള്ളം എടുക്കുന്ന പുഴയിൽനിന്നൊക്കെ ആയിരുന്നു അപ്പോൾ അതിനിപ്പോ പറ്റുന്നില്ല ആ സാഹചര്യം ഒക്കെ മാറിയിരിക്കുന്നു അതായത് ഓടയിൽക്കൂടെയും ചാലിൽക്കൂടെ ഒക്കെ ഒഴുകിവരുന്ന വെള്ളം ഒക്കെ നമ്മുടെ ഈ പുഴയും ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അതൊക്കെ കാരണം കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് കുടിവെള്ളത്തിന് ഒട്ടും ശുദ്ധിയോ വൃത്തിയോ ഒന്നുമില്ല അതുപോലെതന്നെ അതിലൂടെയും അവിടെയുള്ള ആൾക്കാര് ഫുള്ള് പ്ലാസ്റ്റിക്ക് കാര്യങ്ങളൊക്കെ വലിച്ചെറിയുകയാണ് എടുത്തു വെക്കുക സൂക്ഷിച്ചു വയ്ക്കുക അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ഒന്നും ചെയ്യുന്നില്ല അവരെല്ലാം വലിച്ചെറിയുകയാണ് അങ്ങനെ ആ പ്രദേശം മൊത്തം മലിനീകരണം ആകുകയാണ് അതുപോലെ തന്നെ ഫാക്ടറി കാര്യങ്ങളിലൂടെ ഒക്കെ വരുന്ന പുകകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് കോഴിക്കോട് ജില്ല ഫുള്ള് മലിനീകരണമാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേതാക്കന്മാര് ഇതിൽ ഇടപെടുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല കാരണം അവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങൾ ആണ് അവരുടെ വീടും കാര്യങ്ങളും നോക്കി നടക്കണം അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കണം ആ ഒരു രീതിയിലാണ് അവരൊക്കെ നടക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതൊന്നും കാര്യങ്ങളൊന്നും അവർ ചെയ്യു ചെയ്യുന്നില്ല അപ്പോൾ ഇതിനൊക്കെ എന്താ പ്രശ്നം ഇതൊക്കെയാണ് അവ കോഴിക്കോട് ജില്ലയിൽ ഉള്ള അവർ പ്രധാനമായിട്ടും നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ